കർഷകർക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം കുരുമുളകും കാപ്പിയുമൊക്കെയാണ് കാരണം അതിന് നല്ല വില കിട്ടും ഈ സമയത്ത് ഇപ്പോൾ നെല്ലിലൊന്നും അധികം പ്രാധാന്യമില്ല കാരണം പുറം സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പം അധികം കൊണ്ടു വരുന്നത് അതുകൊണ്ട് കർഷകർക്ക് അധികം ലാഭം കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കുരുമുളക് ഒക്കെയാണ് നല്ല എല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നെല്ല് നെല്ലിന് കുറേ പണികൾ ഉണ്ട് കുരുമുളകിനെക്കളും കുറവ് കുറവാണ് ഉള്ളത് നല്ല ലാഭവും കുരുമുളും കാപ്പിയിൽ നിന്ന് കിട്ടും പിന്നെ നെല്ലിന് കുറേ സമയം എടുക്കും കുരുമുളകും കാപ്പി ആണെങ്കിൽ അധികം സമയം വേണ്ട പിന്നെ നല്ല ലാഭവുമാണ് ഇപ്പ കർഷകരൊക്കെ അതാണ് ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഇപ്പ അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് എല്ലാ കൃഷിക്കാരും അതാണ് ഇപ്പം ചെയ്യുന്നത് എല്ലാവരും അതാണ് ഇഷ്ടപ്പെടുന്നത് നല്ല ലാഭവുമാണ് ഇവർക്ക് നല്ല സൗകര്യമാണ് അധികം വള്ളിയൊക്കെ പടർത്തി കൊടുത്താൽ മതി നെല്ല് നെല്ലിനാണെങ്കിൽ കുറേ സ്ഥലവുമൊക്കെ വേണ്ടി വരും ഇപ്പം കൂടുതലും കാപ്പിയും കുരുമുളകും ഒക്കെയാണ് ഇഷ്ടം ഇപ്പം അതാണ് ചെയ്തെയ്തെയ്ത് അതാണ് അവർക്ക് സൗകര്യം അതാണ് അവർക്ക് ലാഭം